നീന്തൽ എന്നുപറയുന്നൊരു പ്രക്രിയ പ്രക്രിയ നമ്മളെ ആരോഗ്യത്തിന് വളരെയധികം നല്ലരീതിയില് സഹായിക്കുന്ന ഒന്നാണ് നമ്മൾടെ ശരീരത്തിന് അല്ല അവയവങ്ങളൊക്കെ കൂടുതൽ മൂവ് ആകുകയും നമ്മളൊരു എക്സൈസ് ചെയ്യുന്നതിൻ്റെ തന്നെ ഒരു ഫലം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ശ്വസനനിയന്ത്രണത്തിനും അത് കൂടുതല് സഹായമാകുന്നുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് പിന്നെ അത് നമ്മളെ കയ്യിൻ്റെ മൂവ്മെൻറ്റും നമ്മളെ ചെസ്റ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ വരുമ്പൊഴാണ് അതിനനുസരിച്ച് നീന്തല് നമുക്ക് ആരോഗ്യത്തിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലായിട്ട് കണ്ടുവരുന്നത്